ഹലോ ഹലോ ഹിൽസ് പാർക്ക് ഹോട്ടലല്ലേ ഇത് ഞാൻ മങ്ങാട്ടുകരേന്ന് വിളിക്കാണ് ഞാനവിടെ ഒരു ഫുഡിന് ഓർഡറ് കൊടുത്തിരുന്നു ഒരു ഒരു മണിക്കൂറ് മുമ്പ് കൊടുത്തിരുന്നതാണ് അപ്പം കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഫുഡ് കൊടുത്ത് വിടുന്നാണ് പറഞ്ഞത് ഇപ്പം ഇരുപത് മിനിറ്റും കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഒരു മണിക്കൂറാവുന്നു സാധനം ഇതുവരെ ഇവിടെത്തീട്ടില്ല ഇതിപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത് ഒന്നുല്ലേ സാധനം ഇവിടിപ്പോൾ എത്തണമായിരുന്നു അല്ലെങ്കിൽ ആൾ വിളിച്ച് ഡെലിവറി ചെയ്യുന്നാളെ വിളിച്ചിട്ടയാൾ ഫോണും എടുക്കുന്നില്ല ഇപ്പം ഞാനിപ്പം എങ്ങനെയാണ് ഇത് ക്യാൻസൽ ചെയ്യണോ എനിക്കിനി ഫുഡ് വേണ്ട ഇപ്പം ഞാനെന്തെയ്യണം ഇങ്ങനെയാണോ നിങ്ങളൊരു ഹോട്ടലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു റെസ്പോൺസ് വേണ്ടേ നിങ്ങൾക്കത് ഒന്നൂല്ലെങ്കിൽ സമയത്തിനെത്തിക്കാൻ നോക്കുക അല്ലെങ്കിൽ ഫോണെടുത്ത് ആ ഡെലിവറി ചെയ്യുന്നയാളെ ഒന്ന് പറഞ്ഞാൽ മതി ലേറ്റാവൂന്നുള്ള പറഞ്ഞാലല്ലേ നമുക്കറിയാൻ പറ്റൂള്ളൂ ഇപ്പം ഇത്രേം സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് ഞങ്ങൾക്ക് വേണോ ഇനി എനിക്കത് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള നിങ്ങളതിനുള്ള എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ താങ്ക് യൂ